ഈ പറഞ്ഞതൊക്കെ ബ്രാഹ്മിൺസിന്റെ സംസ്കാരത്തിൽപ്പെടുന്നതാണ് രംഗോലി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതായത് മുറ്റത്ത് കോലമിടുന്ന ഒരു പ്രക്രിയയാണ് പിന്നെ സൂര്യനു വെള്ളം കൊടുക്കൽ അതായത് സൂര്യനു വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കൊടുക്കില്ലെ നമ്മൾ ദാഹിച്ചിരിക്കുന്ന സൂര്യനു വെള്ളം കൊടുക്കുന്നതായിട്ട് സൂര്യദേവന് വെള്ളം കൊടുക്കുന്നതായിട്ടാണ് സങ്കൽപ്പിക്കുന്നത് ഇവർ പിന്നെ നെറ്റിയിൽ കുങ്കുമം അതായത് കുങ്കുമം ഇടുന്നതെന്നു വച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹിന്ദുക്കളാണ് കൂടുതലായിട്ടും കുങ്കുമവും ചന്ദനവും ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഇവരാണ് അതായത് ബ്രാഹ്മിൺസും നമ്മൾ ഹിന്ദുക്കളുമാണ് പൂണൂൽ ധരിക്കുന്നു പറഞ്ഞാൽ ബ്രാഹ്മിൻസാണ് അതായത് അമ്പലത്തിലെ പൂജാരികൾ പിന്നെ ബ്രാഹ്മിൺസ് സമൂഹത്തിലെ ബ്രാഹ്മിൺസ് ആൾക്കാർ ഇപ്പോൾ എന്റെ ഞാനത് മാനന്തവാടിയിൽ തന്നെ ബ്രാഹ്മണ സമൂഹം നടക്കുന്ന ഗ്രാമം പിന്നെ അഗ്രഹാരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പൂണൂൽ ധരിച്ചിട്ടാണ് ഇറങ്ങാറ് അതായത് ഇവർക്ക് മൂന്ന് രണ്ട് മൂന്ന് ടൈപ്പ് നൂലുകളുണ്ട് അത് എങ്ങായാണെന്ന് എനിക്ക് കറക്ട് അറിയില്ല എങ്ങനെയാണ് ധരിക്കാറ് പിന്നെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ പോകും അങ്ങനെ ഇവിടെ ഒരമ്പലം ഉണ്ട് പൈങ്ങാട്ടിരി എന്നു പറഞ്ഞ ഇവറുടെ തന്നെ ഒരു സമൂഹം തന്നെയുണ്ട് അതായത് ബ്രാഹ്മണ സമൂഹം എന്നു പറഞ്ഞ ഒരു സംഭവം ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിലേക്കൊക്കെ പോവാറുണ്ട് പിന്നെ നോമ്പുകൾ നടത്തും ഇവർ പിന്നെ ഭക്ഷണം കഴിക്കുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാംസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാറില്ല പൊതുവെ കഴിക്കാറില്ല അവർക്ക് പിന്നെ ഫുൾ ടൈം ഏകദേശം നല്ല നോമ്പ് ചിട്ടകളൊക്ക ഉള്ളവരാണ് ഇതൊക്കെയാണ് ഈ ബ്രാഹ്മണ സമൂഹത്തെക്കുറിച്ചും ഈ സംസ്കാരത്തെക്കുറിച്ചും പറയാൻ ഉള്ളത്